ഹലോ ഇത് ഉടുപ്പി റെസ്റ്റോറൻറ് അല്ലേ ഞാൻ അവിടെ നിന്ന് ഒരു ഭക്ഷണം വാങ്ങാന് വേണ്ടിയിട്ട് ആയിരുന്നു ആ ആ ആ അതെ അപ്പോൾ എങ്ങനെയെന്ന് വെച്ചുകഴിഞ്ഞാല് നിങ്ങളുടെ എന്തോ ഒരു കൂപ്പണും കാര്യങ്ങളും ഒക്കെ ഞാനിങ്ങനെ വാട്ട്സ്ആപ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തെങ്കിലും ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ഇപ്പോൾ കൊടുക്കുന്നുണ്ടോന്നറിയാന് വേണ്ടി വിളിച്ചതാണ് ആ എനിക്ക് കുറച്ച് സാധനങ്ങള് ഇപ്പോൾ മസാലദോശ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടാവില്ലേ നിങ്ങളുടെ ഇതില് ആ അതെ അതെ എനിക്ക് ഫുള് വെജിറ്റേറിയന് ആണ് വേണ്ടത് അതാണ് നിങ്ങളെ ഞാന് വിളിച്ചത്

ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഡെലിവറി ഹോം ഡെലിവറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവില്ലേ ഉണ്ടാവും അല്ലേ ഓക്കേ അങ്ങനെയാണെങ്കില് ഒരു നാല് മസാലദോശ പിന്നെ സാധാദോശ ഏതൊക്കെയാണ് ഉള്ളത്

അപ്പോൾ നാല് സാധാ ദോശയും നാല് മസാലദോശ പിന്നെ ബജ്ജിക്കറിയും പിന്നെ ചന്നാ മസാല എന്നു പറഞ്ഞിട്ടൊരു ഗ്രീന്പീസ് കറിയില്ലേ അതും ഓക്കേ ഓക്കെ അങ്ങനെയാണെങ്കില് അതൊന്ന് എത്തിക്കൂ കേട്ടോ ഞാൻ ഡെലിവറി ബോയിന്റെ അടുത്ത് കാഷ് കൊടുക്കാം ഓക്കേ എന്നാൽ